ജീവിതത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങളുമായി ആയോധന കലയെ എങ്ങനെ കൊണ്ടു പോകുമെന്ന് ചോദിച്ചാൽ ആയോധനക്കല പഠിച്ചത് ഒരു ഉപകാരംന്ന് വെച്ചാൽ നമ്മ്ക്ക് നമ്മളെത്തന്നെ രക്ഷിക്കാനാവും എന്നുള്ളതാണ് ചില പല പ്രതിസന്ധികളിലും നമ്മൾക്ക് ചിലപ്പോൾ ഒരു ആയോധന കല പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചു പോവും നമ്മളെ തന്നെ സ്വയം രക്ഷിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്മുള്ള നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ കൂടി എന്തെങ്കിലും ആപത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെയാണ് ആയോധന കല നമ്മളെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിനോടുള്ള ഉപകാരം അത് തന്നെയാണ് മറ്റ് ഉത്തരവാദിത്വങ്ങൾ പിന്നെ നമ്മുടെ ശരീരത്തെയൊക്കെ നമുക്ക് ഹെൽത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഒരു എന്നും നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യപൂർണ്ണമായ ഒരു ശരീരത്തെ നിലനിർത്താനും കഴിയുമെന്നുള്ളതാണ് ആയോധന കല കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം